ആ സ്കൂളിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വല്ല്യ രീതീല് ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മള് ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് വിടുന്നതെങ്കില് മെയിനായിട്ട് നമുക്ക് അവിടെ വരുന്ന ഫീസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് നമുക്ക് പിടിഎ ഫണ്ട് പിന്നെ സ്പോർട്സിന്റെ ഫണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഫണ്ടുകളും കാര്യങ്ങളും മാത്രം നമ്മള് കൊടുത്താൽ മതിയാകും പക്ഷേ പുറമേയുള്ള അതായത് പ്രൈവറ്റ് സ്കൂളിലൊക്കെ എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നല്ല രീതിയിലുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലെങ്കി നമുക്ക് കുട്ടിയെ അവരെ പഠിപ്പിക്കാത്ത ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കുക അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ ചെയ്യുന്നത് പറയുക അപ്പോൾ നമ്മള് മെയിനായിട്ട് ഇവിടെയുള്ള സ്കൂളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മള് നമ്മളെ ഗവൺമെൻ്റ് സ്കൂ സ്കൂളിലൊക്കെയാണെങ്കില് വലിയ രീതിയിലുള്ള ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല രീതിയില് അവരെ പഠിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അത് കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മടെ ഗവൺമെൻറ് സ്കൂള്ന്ന് വേണെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ഫീസ് ഘടനയൊക്കെ ഇങ്ങനെയാണ് രണ്ടായിരം രൂപയോ ഇരുന്നൂറോ മുന്നൂറോ എങ്ങാണ്ടാണ് നമ്മുടെ ഇവിടെ പിടിഎ ഫണ്ടെന്ന് വേണങ്കി പറയാൻ പറ്റും